നീന്തൽ പരിശീലനത്തിൽ നമ്മള് ഇപ്പോൾ ശ്വാസം കുറച്ച് നേരം കുറച്ച് കൂടുതൽ നേരം പിടിച്ചു നിർത്താനുള്ള എക്സർസൈസ് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ പ്രോട്ടീൻ ഫുഡ് കഴിക്കും ജല കണങ്ങൾ കൂടുതലുള്ള ഫുഡ് കഴിക്കുക അപ്പോൾ അതെല്ലാം നീന്താനുള്ള തയ്യാറെടുപ്പിനു മുമ്പ് ചെയ്യുന്നത് അതെല്ലാമാണ് കാരണം വെള്ളത്തിനടിയിൽ ഓക്സിജൻ ഇല്ല അതുകൊണ്ടുതന്നെ ഓക്സിജൻ കുറച്ച് നേരം സ്റ്റോർ ചെയ്യുന്ന പോലെ നമുക്ക് ശ്വാസം കിട്ടുന്നപോലെയൊക്കെയുള്ള അതിനുള്ള എക്സർസൈസ് ചെയ്യണം നീന്തുന്നതിനു മുമ്പ് അമിതമായി ഭക്ഷണം കഴിച്ചിട്ട് നീന്താൻ പറ്റില്ല ഒന്ന് കാരണം ദഹിക്കാനുള്ളതില്ല പെട്ടെന്ന് കൈ കയ്യൊക്കെ ഉപയോഗിച്ച് നമ്മൾ എടുക്കുമ്പോൾ ഈ ഭക്ഷണം ദഹിക്കാനുള്ള എനർജിയും കൂടെ എല്ലാം കൂടെ വലിച്ചെടുക്കുമ്പോൾ നമുക്ക് അങ്ങനെ തളർച്ച വരും അതുകൊണ്ട് വെള്ളത്തിൽ തന്നെ പോകാൻ വെള്ളത്തില് താഴും അല്ലാതെ നമുക്ക് ഒരുപാട് ഫുഡ് കഴിച്ചു വെച്ചാൽ നീന്താനൊക്കെ ബുദ്ധിമുട്ടാണ് ഭാരം കൂടും നമുക്ക് പെട്ടെന്ന് കുറച്ച് ദൂരം ചെയ്യുമ്പോളേക്കിനും തന്നെ കിതപ്പ് വരും അപ്പോൾ പിന്നെ വെള്ളം വേണം എന്നാകും പിന്നെ കടലില് അതുപോലെ ഉള്ള ഇല്ലെങ്കിൽ പുഴ ഇങ്ങനെയുള്ള ഇടങ്ങളിൽ ഇറങ്ങി ചോദിച്ചാൽ അതിൽത്തെ വെള്ളം നമുക്ക് കുടിക്കാൻ പറ്റാത്തതുകൊണ്ട് ആൾക്ക് സ്വാഭാവികമായും അസ്വസ്ഥത അനുഭവപ്പെടും ചിലപ്പോൾ എല്ലാവരും മയങ്ങും ചിലര് മയങ്ങി വെച്ചാൽ വെള്ളത്തിൽ താഴും അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ട്